ഒരു നീണ്ട ബൈക്കിങ്ങിനെന്നുവച്ചുകഴിഞ്ഞാല് ആദ്യമായിട്ടു വേണ്ടതു കയ്യില് പൈസ കയ്യില് പൈസ വേണം കൈയില് പൈസ ഇല്ലാണ്ടൊരു പരിപാടി നടക്കൂല അപ്പോള് കയ്യില് ഫണ്ട് വേണം പിന്നേന്നുവച്ചുകഴിഞ്ഞാല് പെട്രോള് കാരി ചെയ്യാനായിട്ട് ഒരു രണ്ട് കന്നാസ് കന്നാസെന്നുവച്ചുകഴിഞ്ഞാല് നമ്മള് സാധാ പെട്രോള് നിറയ്ക്കാൻവേണ്ടി പെട്രോള് നിറയ്ക്കാൻ എന്തു കിട്ടുമോ അത് പിന്നെയെന്നുവച്ചുകഴിഞ്ഞാല് പിന്നെ വണ്ടിക്ക് അത്യാവശ്യം വണ്ടി സേഫാണോ എന്നു നോക്കണം എപ്പോഴും വണ്ടി കണ്ടീഷനാണോ എന്നു നോക്കണം ആക്സിലേറ്റർ കേബിള് ഒരു ലോങ്ങ് ട്രിപ്പ് പോവുകയല്ലേ അതുകൊണ്ട് ആക്സിലേറ്റർ കേബിള് ബ്രേക്ക് കേബിള് ബ്രേക്ക് ഓയില് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ വണ്ടി അത്യാവശ്യം ലോങ്ങ് പോവാൻ പറ്റുന്ന കണ്ടീഷനാണോ എന്നു നോക്കണം ലോങ്ങ് പോവാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കില് മാത്രം എടുത്തിട്ട് പോവുക അല്ലെങ്കിൽ ആ ട്രിപ്പ് ക്യാൻസലെയ്യുക ലോങ്ങ് പോവാൻ പറ്റുക അതായത് ഒരു ലോങ്ങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പകുതി വഴിക്കാക്കിയിട്ടു വരാൻ പറ്റില്ലല്ലോ അഥവാ ഇനി അവിടെ വണ്ടിയെവിടെയെങ്കിലും പെട്ടുപോവുകയാണെങ്കിലും സീനാണല്ലോ പിന്നെ അത്യാവശ്യം ഫുഡിനുള്ള എന്തെങ്കിലും എക്യപ്മെന്റ്സ് കയ്യില് കരുതുക ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് പ്രിപ്പെയറെയ്യാനും ഫുഡ് ഇണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് എക്യിപ്മെന്റ് എന്തെങ്കിലും കൈയില് കരുതുക പിന്നെ എന്നുവച്ചുകഴിഞ്ഞാല് വേറെയൊന്നും ഇല്ല ഇതൊക്കെ ഉണ്ടെങ്കില് ഒരു ബൈക്ക് റൈഡിങ് എപ്പോഴും സെയ്ഫായിരിക്കും അതായത് ഒരു നീണ്ട ബൈക്ക് റൈഡിങ്ങൊക്കെയാണെങ്കില് ഇതൊക്കെ മതി